ഹലോ ഞാനൊരു ടാബ്ലറ്റിന് ഓഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിതു വരെ എത്തിയിട്ടില്ലല്ലൊ ഡെലിവറിയിതുവരെയായിട്ടില്ല ഡെലിവറി എട്ടേ ഏഴിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ സമയം കഴിഞ്ഞിട്ടും അതൊന്നും കിട്ടിയിട്ടില്ലല്ലോ അതിനെന്തേലും ആശയക്കുഴപ്പങ്ങളുണ്ടോ അതേക്കുറിച്ച് എന്താണ് നിങ്ങള്ക്ക് പറയാനുള്ളത് അതോ ഇനി ഞാൻ രണ്ടാമത് വീണ്ടും ഓഡർ ചെയ്യേണ്ടിവരുമോ അതേക്കുറിച്ച് അത് അല്ലെങ്കില് ഞാനത് ഓഡര് ഇതാക്കിയിട്ട് ഞാൻ രണ്ടാമത് ചെയ്യേണ്ടി വരുമോ അത് നിങ്ങള് പറഞ്ഞ സമയങ്ങള് കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാനതേക്കുറിച്ച് ചോദിച്ചത്